യുവതലമുറ കൃഷിയിൽ നിന്ന് അകലാനുള്ള കാരണം എന്നു വച്ചാൽ മേയ്നായിട്ട് ഫോൺസ് ആണ് മൊബൈൽ ഫോൺസ്സ് വന്നതും അത് കൊണ്ടാണ് മെയിനായിട്ടും എന്താക്കുക അതായത് കൃഷിയിൽ നിന്നും കാര്യങ്ങൾ അകന്നു പോയത് പിന്നെ എല്ലാവിധ സാധനങ്ങളും മാർക്കറ്റിൽ ലഭ്യമായത് കൊണ്ട് എല്ലാവരും അത് വാങ്ങുന്നു അത് ഇപ്പം ചെറിയ പൈസ ചെലവിട്ടാണ് അത് വാങ്ങുന്നത് കൃഷി എന്നു പറയുമ്പോൾ അത് മുടക്കാണ് കുറച്ചു അദ്ധ്വാനിക്കുന്നവർ കാര്യമായത് കൊണ്ടും നമ്മൾക്ക് അത് യുവതലമുറയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായത് കൊണ്ട് ആരും അതിലേക്ക് തിരിയാറില്ല മെയിനായിട്ടുള്ള കാരണം അതാണ് പിന്നെ താൽപ്പര്യക്കുറവ് കൃഷിയോടുള്ള താൽപ്പര്യക്കുറവും അത് ഒരു കൃഷി ചേയ്തു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുക തങ്ങളുടെ സംസ്കാരത്തെ ബാധിക്കുമെന്നും ആ രീതിയിൽ എടുത്തുകൊണ്ട് ചിലവർ കൃഷി ചെയ്യാറില്ല ചിലവർ അതിനെ ഇഷ്ടപ്പെട്ടു ചെയ്യുന്നുമുണ്ട് എല്ലാവരും എന്നല്ല കേട്ടോ കുറച്ചു പേരൊക്കെ ചെയ്യുന്നതു കൊണ്ട് കുറച്ചു പേരൊന്നും ചെയ്യുന്നില്ല ചെയ്യാത്തതിൻ്റെ മേയ്ൻ കാര്യം ചെളി മണ്ണ് വാരുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല അതൊക്കെ ഒരു കാരണമായിട്ട് എടുക്കാം പിന്നെ ചെയ്യുന്നവരുമുണ്ട് മെയിനായിട്ട് മൊബൈലിൽ ഒക്കെ അവരുടെ ഇൻട്രസ്റ്റ് കുറച്ചു എല്ലാ സാധനവും പുറത്തു നിന്ന് വാങ്ങി ജീവിക്കുന്നു പിന്നെ എല്ലാവരും സിറ്റികളിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃഷിയൊന്നും നോക്കി നടക്കാനുള്ള സമയം ആർക്കുമില്ല എന്നാലും സമയം ആർക്കും ഇതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താനുള്ള ഒരു ഇത് ഇല്ല സമയം കണ്ടെത്താൻ താൽപ്പര്യം ഇല്ല